ജനിച്ച കുട്ടികളെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് സൂക്ഷിച്ച് കാരണം അവർക്ക് പ്രതിരോധ ശക്തി ഭയങ്കര കുറവായിരിക്കും അപ്പം നമ്മൾ അതുപോലെ കെയർ ചെയ്തായിരിക്കും അവരെ കാരണം കൂടുതൽ കാറ്റ് അടിക്കാതെയും കൂടുതൽ തണുപ്പ് ചൂട് ഒന്നും അടിക്കാതെ ഒക്കെ ആയിരിക്കും നമ്മൾ അവരെ നോക്കുന്നത് ആദ്യത്തെ ആറ് മാസം അവർക്ക് മുലപ്പാൽ മാത്രമായിരിക്കും കൊടുക്കുന്നത് ആറ് മാസം കഴിയുമ്പം നമ്മൾ കുറുക്കുകൾ കുറുക്കുകൾ ഒക്കെ കൊടുക്കാനായിട്ട് തുടങ്ങും പല സൈസുകളിലെ ഏത്തയ്ക്കാപ്പൊടി ഏത്തയ്ക്കാപ്പൊടി കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ അമൃതം പൊടി കുറേശ്ശെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും കുറച്ച് ബിസ്ക്കറ്റ് കുറേശ്ശെ കൊടുക്കും പശുവിൻ പാൽ കുറേശ്ശെ കൊടുക്കാൻ തുടങ്ങും പിന്നെ അതുപോലെ നമ്മുടെ ഒമ്പത് മാസം ആവുമ്പോഴത്തേന് നമ്മൾ അവർക്ക് ചെറുതായിട്ട് ചോറൊക്കെ ഞവടി കൊടുക്കാൻ തുടങ്ങും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ആറ് മാസം കഴിയുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുവാനായിട്ട് സാധിക്കും ഈ ആറ് മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണങ്ങൾ കൊടുത്തെങ്കിൽ കൊടുക്കുമെങ്കിലും മുലപ്പാൽ തന്നായിരിക്കും കുഞ്ഞുങ്ങൾ കൂടുതലും കഴിക്കുക പിന്നെ മുലപ്പാലിൻറെ അത്രയും ഗുണം വേറൊരു ആഹാരത്തിനും പോഷകാഹാരത്തിനും കാണാതെയില്ല എങ്കിലും ആറ് മാസം കഴിയുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ ഓരോ റാഗിപ്പൊടി ഓരോരോ പൊടികൾ കൂരക പൊടി ഇങ്ങനെ ഒരൊരോ പൊടികളും കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് രൂപേണ ആക്കി കൊടുക്കാറുണ്ട് അതിന് അവരെ അവരുടെ ആരോഗ്യത്തിന് വേണ്ട എല്ലാ ഭക്ഷണ സാധനം പിന്നെ നമ്മൾ സെറിലാക്ക് പുറത്തുനിന്നുള്ള സെറിലാക്ക് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കു ഒരു വയസ്സ് വരെ നമ്മൾ കൊടുക്കുവാൻ സാ കൊടുക്കുന്നത് ഫുഡ് ചോറ് കൊടുക്കുക എന്തെങ്കിലും നന്നായിട്ട് ഞവടി മോര് തൈര് നന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊച്ചിലേ മുതലേ കൊടുക്കും